ഹലോ അതെ ആണല്ലോ ആ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഓക്കെ എനിക്ക് അഞ്ച് ലക്ഷമാണ് വേണ്ടത് ഉം ഇത് ബി എസ് സി നഴ്സിംഗ് ആണേ മൂന്ന് വർഷമാണ് ബാംഗ്ലൂരിലുള്ള രാജഗിരി കോളേജ് ആണ് വീടുണ്ട് വീടും സ്ഥലവുമുണ്ട് ഇല്ല ഇതുവരെ ഇല്ല അച്ഛൻ്റെ പേരിലാണ്

എന്താണ് യാ ഇത് വന്ന് ശാസ്തമംഗലം ആ നെക്സ്റ്റ് മന്താണ് മാർച്ച് ഫിഫ്റ്റീൻതിനാണ് അഡ്മിഷൻ ഡേറ്റ് പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ ഇന്റെറസ്റ്റൊക്കെ എങ്ങനെ ആണ് എനിക്ക് ആ ഓക്കെ മൂന്ന് വർഷം കഴിഞ്ഞ് ജോലി കിട്ടിയതിനുശേഷമല്ലേ

ടൈം പിരീഡ് എങ്ങനെയാണ് ഉം ആ ആ ഉം ആ അതിന് മുൻകൂട്ടി ഒരു അറിയിപ്പ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ഓക്കെ ഇത് മാസം എത്ര അടക്കേണ്ടിവരും ഓക്കെ ഉം ആ അതെ എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സാണു വേണ്ടത്

രണ്ട് കോളേജിൻ്റെ ആ ഉം ആ ഉം ഉം ഓക്കെ ഓക്കെ ആ പിന്നെ ഇപ്പോള് ആ ആ അടുത്ത മാസം ഫിഫ്റ്റീൻതിന് തുടങ്ങുമല്ലോ കാസ്സൊക്കെ അപ്പോള് ഫസ്റ്റ് ടേം അതിന് മുന്നേ ലോൺ പാസ്സാകുമോ ഓക്കെ ഉം ബുധനാഴ്ച ആ വരാം ഉച്ചക്ക് ശേഷം വന്നാല് മതിയോ മാനേജറിനെ കയറി കണ്ടാല് മതിയോ ഡയറക്റ്റ് ഓക്കെ ഓക്കെ താങ്ക് യു